ക്ലാസ്സിക്കൽ മോഡേൺ നൃത്തങ്ങൾക്കിടയില് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് താല്പര്യം തോന്നിയിരിക്കുന്നത് മോഡേൺ നൃത്തത്തിനോടാണ് അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നതും ഞാനൊരു മോഡേൺ ജനറേഷനിനിടയിലായിട്ട് ജനിച്ചൊരു വിദ്യാർത്ഥിനിയായത് കൊണ്ടുതന്നെയാണ് എന്നിരുന്നാലും എനിക്ക് ക്ലാസ്സിക്കൽ നൃത്തത്തിനോടും താല്പര്യമുണ്ട് അത് കണ്ടിരിക്കാനാണെങ്കിലും എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ മോഡേൺ നൃത്തത്തിനെക്കാളും കുറച്ചുകൂടി നമുക്ക് അറിവും പ്രാധാന്യവുമെല്ലാം നല്കുന്ന ഒന്നാണ് ക്ലാസിക്കൽ നൃത്തമെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് പുരാതനകാലം മുതലുള്ള അറിവുകളായാലും പുരാതനകാല സംഭവങ്ങളായാലും പുരാതന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും അതെല്ലാം ഈ ക്ലാസ്സിക്കൽ നൃത്തങ്ങളിലൂടെയും അല്ലെങ്കില് കലാരൂപങ്ങളിലൂടെയും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ അത് പ്രായമായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടിരിക്കാനായിട്ട് കഴിയുന്നൊന്നാണ് ഈ ക്ലാസിക്കൽ നൃത്തങ്ങളെന്ന് പറയുന്നത് കഥകളി മോഹിനിയാട്ടം കോലുകളി അങ്ങനെ പല പല കലാരൂപങ്ങളുണ്ട് ഇവയെല്ലാം തന്നെ ക്ലാസിക്കൽ കലാരൂപത്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് മോഡേൺ നൃത്തങ്ങളെന്ന് പറയുമ്പോഴേക്ക് അവയെല്ലാം തന്നെ ഏകദേശം ഒരേപോലെത്തന്നെയാണ് അത് ആർക്ക് വേണമെങ്കിലും കാണുവാനും കേൾക്കുവാനും ആർക്ക് വേണമെങ്കിലും ഒരു ഒന്ന് ചെയ്തുനോക്കാനായിട്ട് കഴിയുന്ന തരത്തിലുള്ളവയാണ് മോഡേൺ നൃത്തങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നാല് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളെന്ന് പറയുമ്പോഴേക്കും അതൊരു കൃത്യമായൊരു പരിശീലനത്തിലൂടെ മാത്രമേ നമുക്കത് നല്ല രീതിയിലായിട്ട് കളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കലാരൂപമെന്ന് പറയുന്നത് മോഡേൺ നൃത്തങ്ങളെന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ കാലത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മോഡേണ് കലാരൂപങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് വളരെയധികം ഒരു സന്തോഷവും ഒരു ആഘോഷപരമായിട്ടുള്ളൊരു ഉണർവ്വ് നല്കുന്നതാണ് മോഡേൺ നൃത്തങ്ങളെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഈ രണ്ട് നൃത്തരൂപങ്ങളായാലും പഠിച്ചിട്ടില്ല എന്നിരുന്നാലും എനിക്ക് മോഡേൺ നൃത്തങ്ങളോട് അത്യാവശ്യം താല്പര്യമുള്ളതാണ് എന്നിരുന്നാലും ക്ലാസിക്കലിനോടും താല്പര്യം പുലർത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ